വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുകയാണെങ്കിൽ പഠിപ്പ് നമ്മളിപ്പോൾ ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് അതിൻ്റെ സർട്ടിഫിക്കറ്റിനു നമ്മളാശ്രയിക്കുന്നത് സർവ്വകലാശാലകളെയാണ് സർവ്വകലാശാലകളിൽ നമ്മൾ പെട്ടെന്ന് ചെന്നാൽ ഒന്നും നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും എടുത്തു തരത്തില്ല നമ്മളെ എക്സാം എഴുതി കറക്റ്റ് മാർക്കിനാണോ കറക്റ്റിൽ നൂറിൽ നൂറിനാണോ ഇല്ലെങ്കിൽ നൂറിൽ എൺപതിൻ്റെ താഴെയാണെങ്കിൽ മാർക്കുള്ളതാണെങ്കിൽ സർവ്വകലാശാലയിൽ നിന്നും പാസ്സായ സർട്ടിഫിക്കറ്റ് കിക്ട്ടയുള്ളൂ അതിനാണീ സർവ്വകലാശാലകൾ ഉപയോഗിക്കുന്നത് പിന്നെ എഞ്ചിനീയറിങ് ഡാറ്റ അനലിറ്റിക്സ് സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ വിദ്യാഭ്യാസത്തിനു അനുബന്ധ മേഖലകളിലൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് വിദ്യാഭ്യസമാണ് എല്ലാറ്റിനും വേണ്ടത് എഞ്ചിനീയറിങ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇപ്പോൾത്തന്നെ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽത്തന്നെ ജോലിയില്ല വരുമാനമില്ല ഒന്നുമില്ലാതെ നടക്കുന്നു എന്നാൽ ഇപ്പോഴാണെങ്കിൽ ചില ചി മേഖലകളിലും ചില മതത്തിൻ്റെ പേരിലൊക്കെ ഓരോരുത്തർക്ക് ജോലി കിട്ടുന്നുണ്ട് ഈ എഞ്ചിനീയറിങ് കഴിഞ്ഞവർക്കൊക്കെ ഇതിനിപ്പോൾ എഞ്ചിനീയറിങ്ങും എല്ലാ ജോലിക്കും സർവ്വകലാശാലകളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് സർവ്വകലാശാലകളുടെ സർട്ടിഫിക്കറ്റില്ലാതെ ഒരു മേഖലകളിലേക്കും പോകാൻ സാധിക്കുകയില്ല